ബെന്യാം എന്ന എഴുത്തുകാരനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതായത് നമ്മുടെ ഇപ്പോഴത്തെ ആടുജീവിതം എന്ന കഥ പുറത്തുവന്നത് ബെന്യാമിൻ്റെ ആ ഒരു കഥയിലൂടെയാണ് പച്ചയായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും നമ്മുടെ കൺമുൻപിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെയാണ് മലയാളികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മലയാളികളല്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും ജോലി തേടി വിദേശത്ത് പോവുന്ന ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ കൺമുൻപിൽ കാണത്തക്ക രീതിയിൽ നമുക്ക് ഒരു പച്ചയായ മനുഷ്യൻ എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ബെന്യാമിൻ്റെ ആ ആടുജീവിതം എന്ന ഒരു കഥയിലൂടെയാണ് അത് ഒരു ബുക്ക് ആയി അതിനു ശേഷം ആ ബുക്ക് ഒരു സിനിമ ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ആ സിനിമയിലൂടെ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ കുറിച്ചാണ് ഒരു മനുഷ്യൻ അനുഭവിച്ച കഥകളാണ് അനുഭവിച്ച ഒരു ജീവിതമാണ് കഥയല്ല അനുഭവിച്ച ഒരു കാര്യമാണ് കഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ മനുഷ്യൻ അനുഭവിച്ച ആ വേദനകളും പ്രയാസങ്ങളും ഓർക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം വിഷമിച്ചു ആ ഒരു ജീവിതത്തെ ഓർത്ത് അങ്ങനെ എത്രയോ മനുഷ്യർ ഇപ്പോഴും ഗൾഫ് നാടുകളിൽ ഓരോരൊ പ്രശ്നങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ട് അവർക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അതെല്ലാം അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ് അവർ സഹിക്കുന്നത് പിന്നെ ആ ബെന്യാമിൻ്റെ ആ ഒരു ജീവിതം ആ ഒരു കഥ അത് നമുക്ക് ഒത്തിരി പേരുടെ കണ്ണ് തുറപ്പിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും നല്ല ചെയ്തികളും നല്ല പ്രവൃത്തികളും ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് ആ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ കഥ പുറത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് അത് ഇത്രയും ഒരു രീതി ജീവിതമാണ് പ് മരുഭൂമിയിലും അവിടെയും ഇവിടെയും കിടക്കുന്ന ആൾക്കാർ ചെയ് അനുഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഒരു കഥയിലൂടെയാണ് നമുക്ക് സാധിച്ചത്